ഞാൻ വാർത്തകളും മറ്റും അധികവും മൊബൈലിലാണ് കാണാറുള്ളത് അത് വായിക്കാനാണെങ്കിലും നമ്മൾ ന്യൂസ് റീഡ് ചെയ്യാൻ റീഡ് ചെയ്യാൻ ആണെങ്കിലും വാച്ചിങ് ആണെങ്കിലും ഒക്കെ മൊബൈലിലാണ് കാണാറുള്ളതും വായിക്കാറുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് നാല് ചാനൽ ഒക്കെ ഫോള്ളോ ചെയ്യുന്നതും അവരുടെ വരിക്കാരൊക്കെ ആണ് രണ്ട് മൂന്ന് ചാനലുകളുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ആയി ന്യൂസുകളൊക്കെ അപ്പോൾ അപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റാറുണ്ട് അതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ബോധം പൊതുവെ ഉണ്ട് അത് കൊണ്ട് തന്നെ ചാനലുകളൊക്കെ ഞാൻ പേ ചെയ്തിട്ടും മറ്റും കാണാറുള്ളതാണ്